ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നേ ഗ്രൈൻഡർ അങ്ങനെ കുറേ സാനങ്ങളൊക്കെ ഓൺലൈനിൽ കാർട്ടിൽ കാർട്ടിൽ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ഞാൻ എനിക്കൊരു എൻ്റെ വീട്ടിൽക്കൂടലൊക്കെ കഴിഞ്ഞശേഷം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അതൊന്നും വിചാരിക്കാണ്ട് കിട്ടിയതാണ് അതൊന്നും കിട്ടും എന്ന് വിചാരിച്ചില്ല ടി വിയും ബുക്ക് ചെയ്യണം എന്നെല്ലം വിചാരിച്ചിരുന്നു അതൊന്നും ചെയ്തില്ല അപ്പം ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിക്കൂടലിന് എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ അത് വേണ്ടയെന്ന് വച്ച് ക്യാൻസലാക്കി പിന്നേ പിന്നെ ഞാൻ അത് ഓൺലൈൻ അങ്ങനെ കാർട്ടിലേക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യാമെന്ന് വച്ചാൽ ഇപ്പം ഒന്നും വേണ്ട പിന്നെ എന്തെങ്കിലും മിക്സി അങ്ങനെയുള്ള സാനങ്ങളെല്ലം വേണമെങ്കിൽ വാങ്ങാമെന്നല്ലാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഇങ്ങനെ വീട്ടുക്കൂടൽ കഴിഞ്ഞതുകൊണ്ട് എല്ലാ സാധനങ്ങളും കിട്ടി എനിക്ക് അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ തത്കാലം വരുന്നില്ല